ഇത് ക്ലിയർ ഉണ്ടോ ആ അപ്പം ടി വി എസ് ഷോറൂം അല്ലേ ഇത് അപ്പം എനിക്ക് ഒരു കൂട്ടി വേണം ടി വി എസ് എക്സൽ ഹൺഡ്രഡ് ആ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ ഒക്കെ ഒന്ന് പറയുമോ പ്രൈസൊക്ക എങ്ങനെയാണ് വരുന്നത് ഒരു വൺ ആൻഡ് ഹാഫ് ലാക് ആ ആ ആ അപ്പം ഈ മൈലേജൊക്കെ എങ്ങനെയാണ് ഇപ്പം പെട്രോളൊക്കെ കുറച്ചു ഇതല്ലേ അപ്പം മൈലേജൊക്കെ എങ്ങനെയാണ് ആ ആ ഓക്കെ കളർ ഒരു ഗ്രേ കളറ് ആ ആ ഓഫറൊക്കെ എങ്ങനെയാണ് ആ ആ അപ്പം ഈ നമുക്ക് ലോണൊക്കെ കിട്ടുമോ ഈ ബൈക്ക എടുക്കുമ്പോൾ ആ ഇൻസ്റ്റാൾമെൻ്റൊക്കെ അപ്പം എങ്ങനെയാണ് വരൽ ആ ഓക്കെ ഓക്കെ ഇത് നമ്മൾ ലോണെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഡൗൺ പേയ്മെൻറ് ഉണ്ടാവുമോ പിന്നെ എത്ര ദിവസം എടുക്കും നമ്മളിപ്പം കിട്ടാൻ നമ്മൾ ഇപ്പം ഇന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ കൊണ്ടു വന്നു തരുമോ ആ അപ്പം ഈ നമ്പർ പ്ലേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു തരുമോ അല്ലെങ്കിൽ നമ്മൾ ആ ആ പിന്നെ ഈ ലോണ് ലോണ് എത്ര മാസമൊക്കെ എടുക്കും അതായത് ഫുൾ ആയിട്ട് അടച്ചു കഴിയാൻ ആ ഓക്കെ ആ ആ അപ്പോൾ ഞാൻ ഷോറൂമിലേക്ക് വരാം ബാക്കി ഡീറ്റെയിൽസ് അവിടെ നിന്ന് സംസാരിക്കാം